എക്സ്റേ എടുത്തിട്ട് കൊണ്ടുവരുന്നത് ആയിരിക്കും കുറച്ച് കൂടെ ബെറ്ററ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സ്റേൻ്റെ ആൾ ഇന്ന് ലീവാണ് അപ്പം നിങ്ങൾ എക്സ്റേ എടുത്തിട്ട് കൊണ്ട് വരുവാണെങ്കിൽ കാര്യം നടക്കൂ എന്തായാലും നിങ്ങൾ എക്സ്റേ എടുക്കണം കാരണം നീര് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം പൊട്ടൽ കാര്യങ്ങളോ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആ ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും എക്സ്റേ എടുക്കാണ്ട് വേറെ രക്ഷയില്ല കാരണം നമുക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൊട്ടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ പറ്റൂള്ളൂ അതെ അതെ അതെ അപ്പം അത് ഞാൻ ഒരു വയസ്സ് ആവണതേ ഉള്ളൂല്ലേ അപ്പം ആ ഓക്കെ ഓക്കെ എന്നാൽ എങ്ങനെ ആണെങ്കിലും ഇപ്പം നമുക്ക് എക്സ്റേ എടുക്കണം ഇല്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒന്നും ഇല്ല പക്ഷേ കുട്ടിക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടാവും നിങ്ങൾ എത്രയും പെട്ടെന്ന് എക്സ്റേ എടുത്തിട്ട് ആ വരുന്നത് ആയിരിക്കും ബെറ്റർ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല രീതിയിലുള്ള പെയിന് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പം അതിന് അനുസരിച്ചുള്ള മരുന്ന് കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പെയിൻ മാറൂള്ളൂ അപ്പോൾ പൊട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് വലിച്ച് ഇടേണ്ടി വരും അപ്പം നല്ല രീതിയിൽ പെയിന് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും അപ്പം കൂട്ടത്തിൽ അമ്മയെയും കൂടെ കൂട്ടണം കാരണം കുട്ടിക്ക് പാൽ കുടിക്കുന്ന ഇതാണല്ലോ പ്രകൃതം ആണല്ലോ അപ്പം അമ്മയെയും കൂടെ കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പം അമ്മയെയും കൂട്ടി താങ്കളും കൂടെ വരണം ഓ ആ ആ എന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടൽ ഉണ്ടെങ്കിൽ അതിന് അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം ആ ഓക്കെ എപ്പോഴാണ് വരുക ആ ഡോക്ടർ ആ ഞാൻ ഇവിടെ ഉണ്ടാകും നിങ്ങൾ വേഗം പോയിട്ട് എക്സ്റേ എടുത്തിട്ട് അതിൻ്റെ ഇതും കൊണ്ട് വന്നാൽ മതി ഞാൻ ഇപ്പം ഇവിടത്തന്നെ ഉണ്ടാവും ഇല്ല ഇല്ല ഇല്ല നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ മതി പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി എന്നെ വിളിച്ച് പറഞ്ഞത് നന്നായി ഞങ്ങൾ വേഗം റെഡിയാക്കി തരാം കുഴപ്പം ഇല്ല ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ